ഹലോ അതേ ഞാൻ എയ്ഞ്ചൽ ഫിഷ് മാർക്കറ്റിലോട്ട് വിളിച്ചതാണല്ലോ ഓണർ ആണോ ജോർജ്ജ് ഏട്ടനാണോ ആ ഞാൻ നമുക്ക് ഈ കടലിലെ മീൻ അല്ലാതെ നമുക്ക് കിഴക്കേപ്പുറത്തെ മീൻ കിട്ടത്തില്ലേ കരിമീൻ ആ ആ അതെ ആ മുഴുത്തതാണോ അതോ ആന്ധ്രാ അതിൻ്റെ ഈ ആന്ധ്രാ കരിമീൻ ചെളി ചുവയ്ക്കും ആ ആ ആ പതിനായിരം രൂപയ്ക്ക് ആ അപ്പം ആ എനിക്ക് ഇങ്ങനെ പാള പോലെ വലിയ കരിമീൻ വേണ്ട ശ് തീരെ ചെറുതും വേണ്ട എനിക്ക് ഒരു ഇടത്തരം മതി ആ നല്ല മീഡിയം ടൈപ്പിൽ ആ ആ ആറെണ്ണത്തിൽ താഴെ മതി ആ ആറെണ്ണം തൂങ്ങും അ അ ആ അപ്പോൾ അതേ പറ്റത്തുള്ളൂ നമ്മൾക്ക് ഒരു പിന്നെ ബന്ധുക്കാർ വന്നാൽ ഒരെണ്ണം അങ്ങോട്ട് എടുത്ത് പ്ലെയിറ്റിൽ വച്ചാൽ മുറിച്ച് വയ്ക്കുന്നതിലും മീൻ അത് ഓരോന്ന് ആ അതെ ആ അതെ അല്ലാതെ വലിയ കരിമീൻ മേടിച്ച് അത് നമ്മൾ മുറിച്ചിട്ട് വയ്ക്കണം അതിന് ഒരു ഭംഗിയില്ല അത് തന്നെയല്ല വാലും തലയും കാണണം വാലും തലയും കാണണം അതേ വിധം വിധത്തിൽ വേണം നമുക്ക് പ്ലേറ്റിലോട്ട് വയ്ക്കാൻ അപ്പോൾ ആ അപ്പോൾ അത് ആ അത് നമ്മൾക്ക് പിന്നേ നമ്മൾ ഇതിന് വില എന്നാ ഉണ്ട് ആ ഈ ഇടത്തരം തന്നെ നമുക്ക് കിട്ടുമോ എന്നാൽ ആ അപ്പം അതേ നമുക്ക് ഇതൊന്നൂ അത് ഇപ്പം നമുക്കേ ഈ വിലയൊക്കെ ഒന്ന് വിലയൊക്കെ കുറച്ചാണെന്നു വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വിളിക്കുന്നത് ഇതിപ്പൊ പണ്ടില്ലാത്ത വിലയാണല്ലോ പറയുന്നത് എനിക്ക് ഞാറാഴ്ചത്തേക്കാണ് നമുക്ക് ഗസ്റ്റ് വരുന്നത് ആ അപ്പോൾ നമുക്ക് സാറ്റർഡേ കിട്ടിയാൽ മതി സാധനം സാറ്റർഡേയിൽ നമുക്ക് സാധനം കിട്ടണം ഇതൊന്ന് ക്ളീനാക്കാൻ നിങ്ങളുടെ മാർക്കറ്റിൽ ആളുണ്ടോ

ആ ആ

വെള്ളമൊഴിച്ചിട്ട് ആ ആ ആ ആ അപ്പോൾ ആ എനിക്ക് ഇച്ചിരി കൂടുതൽ കൂടുതൽ വേണം അതുകൊണ്ട് ഇച്ചിരി വില കുറച്ച് തരണം കാരണം പത്ത് കിലോ പത്ത് കിലോ വേണം ആ അപ്പോൾ അത് പത്ത് കിലോ ആയത് കാരണം ഇത്ര വില കുറച്ച് തരണം കേട്ടോ ആ ഒരു അമ്പത് രൂപ കൂടെ കുറച്ച് തരണം അ അ അ അ ആ ഓക്കെ ഓക്കെ താങ്ക് യു